ഹലോ ആ പറഞ്ഞോളൂ ആ ഉണ്ടല്ലോ മാഡം ബൾക്ക് ആയിട്ട് തന്നെ വേണമെന്നാണോ ഫംഗ്ഷനാണല്ലേ ആ എത്ര പേർക്കുള്ള ഫംഗ്ഷനാണ് നൂറുപേർക്ക് അല്ലേ ഓൾമോസ്റ്റ് എല്ലാം തന്നെ വേണ്ടി വരുവോ ആ സദ്യ ആണല്ലേ ആ ഒരു നൂറുപേർക്കുള്ളത് അല്ലേ ഇപ്പം വന്നാൽ മാഡത്തിന് എന്നത്തേക്കായിരുന്നു വേണ്ടത് നാളത്തേക്കാണല്ലേ ഓക്കെ ആ ഇന്ന് ഒര് നാല് മണി ആകുമ്പത്തേക്കും നമുക്ക് അറേഞ്ച് ചെയ്യാം മൊത്തത്തില്

ഓഫറ് നമുക്ക് ബൾക്കായിട്ട് എടുക്കുമ്പം മാഡം വലിയ കാര്യമായിട്ടില്ല നമ്മൾ ഡിസ്കൗണ്ട് ചെയ്തുതരും കാരണം നമ്മൾ ഇപ്പം ഷോപ്പില് ഓഫറ് ചെയ്യുന്ന ഒരു കിലോയ്ക്ക് ഇത്ര രൂപ വെച്ച് എന്നാണ് നമ്മള് ഓഫർ കൊടുക്കുന്നത് അപ്പം ഇത്ര ബൾക്കായിട്ട് എടുക്കുമ്പം നമുക്ക് ആ ഡിസ്കൗണ്ട് ചെയ്തുതരാം ആ നമുക്ക് നോക്കാം എന്തായാലും മാഡത്തിന് വേണ്ട എത്രയൊക്കെ വച്ച് വേണ്ടി വരും ഫൈവ് കെ ജി നൂറുപേർക്കുള്ളതല്ലേ പറഞ്ഞത് ഫൈവ് കെ ജി കൊണ്ട് ഓൾമോസ്റ്റ് എത്തുമെന്ന് തോന്നുന്നില്ല മാഡം നമുക്ക് ഏകദേശം ഒരു ടെൻ ടു ഫിഫ്റ്റീന് വേണ്ടി വരും ഹ്മ് അത് നമ്മൾ എത്തിച്ച് തരികയോ അങ്ങനെ എന്തേലും വേണോ വന്ന് കലക്ട് ചെയ്തോളും അല്ലേ ഹ്മ് ആ ഓക്കെ ഇതിപ്പം എങ്ങനെ ആണ് കാറ്ററിംഗുകാര് അങ്ങനെ എന്തേലും ഉണ്ടോ ഉണ്ടല്ലേ ആ ഓക്കെ ആ മാഡം എപ്പത്തേക്ക് ഇന്ന് അഡ്വാൻസ് ചെയ്യുമോ അഡ്വാൻസ് മാഡം പറയുവാണെങ്കിൽ നമ്മൾ നാല് മണി ആകുമ്പത്തേക്കും അറേഞ്ച് ചെയ്യാം അപ്പം ഒരു അഡ്വാൻസ് ഒരു ഫൈവ് തൗസൻഡ് തന്നാൽ മതി

പിന്നെ ലിസ്റ്റ് ഒന്ന് എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാവോ എന്തൊക്കെ ഐറ്റംസാണ് വേണ്ടതെന്ന് വച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ലിസ്റ്റൊന്ന് വാട്ട്സ്ആപ്പ് ചെയ്യണേ ഇല്ലാത്തത് ഇല്ല നമുക്ക് ഓൾമോസ്റ്റ് എല്ലാം തന്നെ വരുന്നുണ്ട് മാഡം ലിസ്റ്റ് അയക്ക് നമുക്ക് ഈ ഇല്ലാത്ത വരികയാണെങ്കിൽ ഞങ്ങളത് പുറത്ത് നിന്ന് അറേഞ്ച് ചെയ്തുതരാം വെജിറ്റബിൾസ് ഉണ്ട് ഫ്രൂട്ട്സ് ഉണ്ട് നോൺവെജ് ഐറ്റംസും വരുന്നുണ്ട് ആ ഓക്കെ മാഡം താങ്ക്യൂ കെട്ടോ വിളിച്ചാൽ മതി